ഒരു ബാഗ് വേണമായിരുന്നല്ലോ ചെറിയ കുട്ടിക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വലുതും വേണ്ട ചെറുതും വേണ്ട അല്ല മൂന്നാം ക്ലാസിലാണ് പഠിക്കുന്നത് ആ ആ ഒന്ന് കാണ് ആ ഇതേ എന്തെങ്കിലും കാർട്ടൂൺ ഒക്കെ കാർട്ടൂൺ ഒള്ള ഛോട്ടാ ഭീം ഡോറ ബുജ്ജി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പടങ്ങൾ ഇല്ലേ അങ്ങ് അങ്ങനെയുള്ള ബാഗ് കാണിക്കേ കാണിക്ക് എന്നിട്ട് ഞാൻ പറയാമേ

ആ ഈ കാണുന്നത് അല്ലേ ആ പിന്നെ വേറെ ഏത് റേറ്റിൻ്റെയാണ് ഉള്ളത് മുന്നൂറ് തുടങ്ങി മുകളിലേക്ക് ഒരു ഡിസ്കൗണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സ്കൂൾ തുറക്കുന്ന സമയമാണ് ആ പിന്നെ ഈ പരസ്യത്തിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ബാഗിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കുടയോ ബോക്സോ അങ്ങനെയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ

ആ അപ്പോൾ സ്കൂബി ഡേയുടെ ഒന്ന് ആ സ്കൂബി ഡേയുടെ ഒരെണ്ണം ഒന്ന് കാണിച്ചേ ആ ഇതാണല്ലേ

അതെല്ലേ ഈ ടോയ് അല്ലാണ്ട് ഫ്രീ ആയിട്ട് ബോട്ടിൽ ബോക്സ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ബാഗ് ഒക്കെ ഉണ്ടോ അതെല്ലേ അപ്പം ഈ സ്കൂബി ഡേയുടെ ആണെങ്കിൽ എത്ര രൂപയാവും ഇത് എടുക്കുമ്പോൾ നാനൂറ് മറ്റേതാവുമ്പം മുന്നൂറ്റി അമ്പത് അല്ലേ ആ പിന്നെ എനിക്കിപ്പോൾ ബാഗ് മതി എന്നാലും ചോദിക്കുവാണ് ഇവിടെ ബുക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ ഷൂ സ്കൂൾ ഷൂ ഒക്കെ ഉണ്ടാവും അല്ലേ ബാഗോ പെൺകൊച്ചിനാണ് ആ ആ ബെൽറ്റ് ഇല്ലാത്ത ടൈപ്പ് ഉള്ളത് മതി ഇപ്പോൾ വേണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് അപ്പോൾ ഷൂവും അതിൻ്റെ ഒപ്പം സോക്സും കിട്ടും അല്ലേ ആ പിന്നെ റെയിൻ കോട്ട് അതൊക്കെ ഉണ്ടോ റെയിൻ കോട്ട് അംബ്രല്ല ഒക്കെ ചെറിയ കുട്ടികളുടെ സൈസിനുള്ള റെയിൻ കോട്ട് ഒക്കെ ഉണ്ടാവും അല്ലേ ആ ആ ആ ആ അപ്പം എനിക്ക് ഈ മൂ ഇതും മുന്നൂറ്റി അമ്പതും സ്കൂബി ഡേ നാനൂറും അല്ലേ എന്നാൽ സ്കൂബി ഡേയിൽ ഡോ ഡോറ ഇല്ലേ ഡോറ ബുജ്ജിയുടെ ആ ആ പടം ഉള്ള ആ ബാഗ് എടുത്തോ അതൊന്ന് പാക്ക് ചെയ്ത് കേട്ടോ ഏ ആ ഇത് മതി ആ സ്കൂബി ഡേയുടെ മതി അമ്പത് രൂപ വ്യത്യാസം അല്ലേ ഉള്ളൂ ആ ഇത് പാക്ക് ചെയ്തോ നാനൂറിൻ്റെ പാക്ക് ചെയ്തോ സ്കൂബി ഡേയുടെ ഗിഫ്റ്റ് മറക്കാണ്ട് വെച്ചേക്കണേ സന്തോഷം പിന്നെ ഷൂ ഇപ്പോൾ വേണ്ട ഇനി ഓരു ദിവസം ഇവിടെ വരുമ്പോൾ എടുത്തോളാം ആ ഓക്കെ ഇത് ഗൂഗിൾ പേ ചെയ്യാമല്ലോ അല്ലേ ഇവിടെ ആ ഓക്കെ അപ്പം ആ ചെയ്തിട്ടുണ്ടേ ഒരു കവറിലിട്ട് തന്നേര് കേട്ടോ ഓക്കെ ഓക്കെ